ഹലോ ആ പറഞ്ഞോളൂ ആ ഓക്കേ മാഡം ആ ഇവിടെ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൂ വീലേഴ്സും ഇവിടെ റെൻ്റിന് കൊടുക്കുന്നുണ്ട് മാഡം ടൂ വീലർ ഒറ്റയ്ക്കാണോ വരുന്നത്

നമുക്കിപ്പോൾ ട്രിപ്പിൾ നയൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടികൾ ഇപ്പോൾ ടൂ വീലേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിപ്പിൾ നയൻ തൊട്ടാണ് പെർ ഡേ ആ ഇല്ല നമ്മൾ വണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ആണ് നമ്മൾ വണ്ടിയിൽ കൊടുക്കുക ബാലൻസ് നിങ്ങൾ അടിക്കേണ്ടി വരും ആ പിന്നെ പെർ ഡേ നമുക്ക് റ്റൂ ഹണ്ട്രഡ് കിലോമീറ്റേർസ് ആണ് നമുക്ക് ലൈസൻസ് മാത്രം മതി ഐ ഡി പ്രൂഫ് ആയിട്ട് ഇല്ല നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ആ ഓക്കേ മാഡം ബൈക്ക് അല്ലല്ലോ ആ ഓക്കേ മാ നമ്മൾ രണ്ട് ഹെൽമെറ്റ് അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈക്ക് വേണോ വേണ്ട ആ ആ ഓക്കേ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൂ വിലേഴ്സും അവൈലബിൾ ആണ് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് ഉണ്ട് സ്കൂട്ടി വേണമെങ്കിൽ സ്കൂട്ടി ഉണ്ട് അതിന്റെ തന്നെ എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആ തരും തരും അത് പേ ചെയ്യണം മാഡം അതായത് വരുമ്പോൾ വണ്ടി തരുമ്പോൾ പെയ്മെൻ്റ് ചെയ്യണം ആ ആ അത് നമ്മൾ വണ്ടി നിങ്ങളെ വിശ്വസിച്ച് തന്ന് വിടുന്നതാണല്ലോ അപ്പോൾ പെയ്മെന്റ് ഫസ്റ്റ്ലേ ചെയ്യേണ്ടിവരും ആ വണ്ടി നമ്മൾ മാനന്തവാടി തന്നെയാണ് ആ മാനന്തവാടി മൈസൂർ റോഡ് ആണ് ആ ഷോപ്പിൽ വരണം ഷോപ്പിലാണ് നമ്മൾ വണ്ടി ഉണ്ടാവുക ഇവിടെ വന്നിട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ തന്ന് കഴിഞ്ഞാൽ മാഡത്തിന് വണ്ടി വന്നെടുക്കാം ആ ആ മാനന്തവാടി മൈസൂർ റോഡ് ആണ് ആ ആ ഓക്കേ മാഡം എത്തുന്നതിന് ഒരു രണ്ടു മിൻ മണിക്കൂർ മുമ്പ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആ ഓക്കേ ആ ആ ഓക്കേ മാഡം മാഡം വരുന്നതിന് വിളി മുൻപൊന്ന് വിളിച്ചാൽ മതി ആ ഓക്കേ മാഡം വരുമ്പോൾ വിളിച്ചാൽ മതി ആ താങ്ക് യൂ മാഡം